കണ്ണൂർ ജില്ലയിൽ ലഭ്യമായ പ്രധാന ആരോഗ്യപരിപാലന സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലെന്നെല്ലാം പറയുമ്പോൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഉണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ട് പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ടുള്ള നല്ല നല്ല ഹോസ്പിറ്റലുകളെല്ലാം ഇപ്പോൾ നമുക്കുണ്ട് ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ആ നമുക്കിപ്പോൾ എന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടുത്തുതന്നെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ട് അവിടെ ഓരോ ദിവസവും ഓരോ ഡോക്ടർസ് വരുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പോളിയോ കുത്താനായി കഴിഞ്ഞാലും ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മളെ ഈ ആരോഗ്യകേന്ദ്രം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ അവിടുത്തേക്ക് വരുന്നത് ഒക്കെ നമുക്ക് ഫോണിലിപ്പോൾ എല്ലാം അറിയിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളത് പോയി അവിടെ പോയി ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ പോ നമ്മളതിപ്പോൾ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ നിന്ന് ക്യൂ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളേ ഇല്ല ഇപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൂത്തുപറമ്പിൽത്തന്നെ ആയിക്കഴിഞ്ഞാലും വലിയ പന്ത്രണ്ടാം നിലയുള്ള ബിൽഡിംഗ് ഉള്ള ഇതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് വാർഡുകളെല്ലാമായിട്ടും എല്ലാം ഉള്ള ഇതാണ് പന്ത്രണ്ടാം നിലയുള്ള ബിൽഡിംഗ് ഇങ്ങനെ പണി നടന്ന് കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ട് കൂത്തുപറമ്പ് അറിയപ്പെടുന്നു നമ്മളെ സർക്കാർ അങ്ങനെ ഉള്ളൊരു നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കൂത്തുപറമ്പിൽ ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയും നല്ല ഇതൊക്കെത്തന്നെ നമ്മളെ ഹോസ്പിറ്റലിലിപ്പോൾ അത് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാൻസർ സെൻറ്റർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോടിയേരിയിൽത്തന്നെ നമുക്ക് അതൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കിപ്പോൾ എന്ത് അസുഖത്തിന് വേണമെങ്കിലും നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലുകൾ ഞമ്മളെ ഇവിടെയുണ്ട്